ഫോട്ടോഗ്രാഫി ശില്പശാലകളിൽ പങ്കെടുത്തിട്ടില്ല അവ നടത്തിയിട്ടുമില്ല എങ്കിലും ഇന്നത്തെ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോട്ടോസ് ഫോട്ടോസ് പ്രദർശിപ്പിക്കുന്നൊരു കൂട്ടത്തിലുള്ളൊരാളാണ് ഞാൻ ഫോട്ടോ എടുക്കുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരാൾ കൂടിയാണ് ഞാൻ ഫോട്ടോയുടെ ഫോട്ടോയുടെ മേഖലകളിലും ഫോട്ടോഗ്രാഫി മേഖലകളിലും വീഡിയോഗ്രാഫി മേഖലകളിലാണെങ്കിലും ഒട്ടനവധി സംഭാവനകൾ നൽകണമെന്നാഗ്രഹവുമുണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കാറുമുണ്ട് എന്നാൽ സാധിക്കാറില്ല എന്നു തന്നെയാണ് സത്യം സാധിക്കുക എന്നെ കൊണ്ടു കഴിയുന്നത് ഞാൻ ചെയ്യാറുമുണ്ട് കാരണം വളരെയധികം അതിനെ സ്നേഹിക്കുന്നതു കൊണ്ടു തന്നെ ഒരുപാട് ലിമിറ്റുകളെല്ലാം നമുക്കുണ്ട് എങ്കിലും അതിനെയെല്ലാം മറി കടന്ന് ഞാനത് ചെയ്യാറുണ്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയുടെ സങ്കേതങ്ങൾ പഠിച്ചിട്ടില്ല ടെക്നോള് ടെക്നിക്സ് പഠിച്ചിട്ടില്ല എങ്കിലും മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്ന അറിവുകളിലൂടെ ഞാൻ വളരെയധികം ഫോട്ടോസെടുക്കുവാനും ഫോട്ടോ മെച്ചപ്പെടുത്തുവാനും ശ്രമിക്കാറുണ്ട് അതിനു വേണ്ടി ഒരുപാടധികം കഷ്ടപ്പെടാറുമുണ്ട് ഫോട്ടോഗ്രാഫിയുടെ ഒരുപാട് മേഖലകളെ മനസ്സിലാക്കുവാൻ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു അതിലൂടെ തന്നെ ഫോട്ടോഗ്രാഫി എന്ന മേഖലയെ വളരെയധികം കീറി മുറിച്ച് പഠിക്കുവാൻ ഞാനാഗ്രഹിക്കുന്നു അതിനു വേണ്ടി ഒരുപാട് ഒരുപാട് ഒരുപാട് വളരേണ്ടതുണ്ട് എന്നു വിശ്വസിക്കുന്നൊരാൾ തന്നെയാണ് ഞാൻ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രഫിക്ക് മേഖല ഇന്നൊരുപാടധികം ഓപ്പർചൂണിറ്റീസ് ഉള്ളൊരു മേഖല തന്നെയാണ് അതു പഠിക്കുന്നതിലൂടെ നല്ല നല്ല ജോലികൾ ലഭിക്കുകയും നല്ല നല്ല മേഖലയിലേക്കെത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്യുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഞാനും ജീവിക്കുന്നത് ഫോട്ടോഗ്രഫി അല്ലെങ്കിൽ വീഡിയോഗ്രഫി ഇത് രണ്ടും സ്കോപ്പുള്ളൊരു മേഖല തന്നെയാണ് വിദ്യാർത്ഥികളിൽ കുട്ടികൾ ഒരുപാട് അതിലേക്ക് ഇറങ്ങിച്ചെന്നു പഠിക്കുകയാണെങ്കിൽ ടെക്നിക്സ് പഠിക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാനം അതിൽ നിന്നു ലഭിക്കും നല്ല രീതിയിൽ അത് വളർത്തിയെടുക്കാൻ സാധിക്കും ആ മേഖല വളരുന്നതോടു കൂടി കൂടുതൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അതിൽ വളരും എന്നു വിശ്വസിക്കുന്നു വളരെയധികം വളരെയധികം ടെക്നിക്സ് അതിലുണ്ട് അതെല്ലാം പഠിക്കണം എല്ലാം മനസ്സിലായെങ്കിൽ മാത്രമേ നല്ലൊരു ഫോട്ടോഗ്രാഫറാകാൻ സാധിക്കുകയുള്ളൂ നല്ലൊരു ഫോട്ടോഗ്രാഫറായി കഴിഞ്ഞാൽ നല്ല നല്ല രീതി വർക്കുകളെടുക്കാം നല്ല രീതിയിൽ പണം സമ്പാദിക്കാം എന്നുള്ളത് എന്നുള്ള തന്നെയാണ് സത്യം ടെക്നിക്സ് വളരുന്നതോടു കൂടി നമ്മളും മാറണം നമ്മളും വളരണം ടെക്നോളജി വളരുന്നതോടു കൂടി നമ്മളും മാറണം നമ്മളും വളരണം അതിലൂടെ സമ്പാദ്യം എന്നതിലുപരി പാഷൻ പാഷനെ സ്നേഹിക്കുക പാഷനുമായിട്ട് ഒത്തൊരുമയോടെ നിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് ഞാൻ നാമിന്ന് മുന്നോട്ടു പോകുന്നത് ടെക്നോളജിയുടെ വളർച്ച വളർന്നു വരുന്നൊരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളിന്നു ജീവിക്കുന്നത് ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് എല്ലാവർക്കും കടന്നു വരാവുന്നതാണ് ചെറിയ ചെറിയ ഫോണുകളിൽ തുടങ്ങി വലിയ വലിയ ക്യാമറകൾ എത്തി നിൽക്കുമ്പോഴും അവർ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പിന്നെയും പഠിക്കാനിരിക്കുന്നു എന്നാണ് സത്യം ഒരിക്കലും പഠിച്ചു തീരുന്നില്ല ഒരിക്കലും അതിനെക്കുറിച്ചുള്ള അറിവുകൾ പഠിച്ചു തീരുന്നില്ല എന്നതാണ് സത്യം ഒരുപാട് മേഖലയിലേക്ക് ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വീഡിയോഗ്രാഫി മേഖലയിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ അതെല്ലാവരും അതിനു നല്ലൊരു നല്ല നല്ല ടെക്നിക്സ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ അത്തരം മേഖലകളിലേക്കു ചെന്ന് അതിനെക്കുറിച്ച് പഠിക്കുക അതു തന്നെയാണ് ആവശ്യം അതു തന്നെയാണ് വേണ്ടത് അങ്ങനെ പഠിക്കുന്നതിലൂടെ എല്ലാവർക്കും നല്ല നല്ല മേഖലയിലേക്കെത്തുവാൻ സാധിക്കുന്നതിലൂടെ തന്നെ എല്ലാവരും വളർന്ന് വരുന്നു വളർച്ചയുടെ പാതയിലേക്കു പോകുന്നതോടു കൂടി നല്ല രീതിയിൽ സമ്പാദിക്കുവാനും നല്ല രീതിയിൽ എവിടെയെങ്കിലും എന്തിലും എത്തിച്ചേരുവാനും സാധിക്കുന്നു